ആ ഹലോ ആ പറഞ്ഞോളൂ സാറേ എന്നത്തേക്കാണ് ഓക്കെ എപ്പോൾ ആ പാക്കേജായിട്ടു ഉണ്ട് നമ്മൾ അല്ലാതെ ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഏത് നിങ്ങൾക്ക് സൗകര്യമേതാണ് പാക്കേജാണോ അല്ലാതെയാണോ ഓക്കെ

ഓക്കെ നമ്മളെ കൈലുള്ള പാക്കേജെങ്ങനാന്ന് വെച്ചുണ്ടെങ്കിൽ ഒരാൾക്ക് ട്രീ ടൌസൻറ്റ് ഫൈവ് ഹൺഡ്രഡ് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഫുഡ് ഫുള്ള് ഫുഡ് ഫുഡ് ആൻറ്റ് അക്കൊമഡേഷൻ കാര്യങ്ങൾ എല്ലാം നമ്മൾ റെഡിയാക്കി തരും ഇപ്പോൾ മൂന്നാറെന്നുള്ള അവിടെ റിസോർട്ട് കാര്യങ്ങൾ എല്ലാം നമ്മൾ എടുത്ത് തരും അതെപോലെ വണ്ടിയിൽ നിന്ന് പറഞ്ഞാൽ സെവൻ സീറ്റെറ് വണ്ടി വേണോ അതൊ നിങ്ങൾക്ക് ട്രാവലറ് വേണോ പതിനാല് സീറ്റിൻ്റെ പതിനാല് സീറ്റ് പതിനാല് സീറ്റിൻ്റെ ട്രാവലറ്ണ്ട് പിന്നെ സെവൻ സീറ്റെറ് വണ്ടിയുണ്ട് എർട്ടിഗ ഇന്നോവ അങ്ങനത്തെ വണ്ടി നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് താൽപര്യം ഓക്കെ നിങ്ങൾക്ക് ആ അതെ അത് പെർ ഹെഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് അക്കോമഡേഷൻ പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്

പിന്നെ വണ്ടി ഏതാണ് നിങ്ങൾക്ക് നോക്കിയിട്ട് പറയാണെങ്കിൽ ചിലപ്പോൾ റേറ്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മാറ്റമുണ്ടാകും അപ്പോൾ ഓക്കെ കൺഫോമാക്കിയിട്ട് വിളിച്ചാൽ മതി

താങ്ക് യൂ സാർ